ഞാൻ ഓർഡർ ചെയ്തത് ഒരു പച്ചക്കളർ ഷർട്ടാണ് ഒരൂ ഞാൻ തിരഞ്ഞത് ഡബിൾ എക്സ് എൽ ൻ്റെ ഒരു പച്ചക്കളർ ഫോർമ്മൽ ഷർട്ടാണ് ഒരുപക്ഷേ എനിക്ക് ഓൺലൈനിൽ നിന്ന് ഇത് വാങ്ങാൻ സാധിച്ചില്ല വാങ്ങാൻ സാധിക്കാത്തതിൻറ്റെ കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ട പച്ചക്കളർ ഇല്ലായിരുന്നത് കൊണ്ടും ഡബിളെക്സ്ൽ വലുപ്പമുള്ള ഇല്ലായിരുന്നത് കൊണ്ടുമാണ് ലാർജ് വലുപ്പത്തിലുള്ള പച്ച കളർ ഷർട്ട് ഉണ്ടായിരുന്നു പക്ഷേ ഡബിൾ എക്സ് എൽ ഇല്ലായിരുന്നു ു